ഒരു പുസ്തകം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കുമെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയാൻ സാധിക്കുക കാരണം നമുക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള ഒരു പുസ്തകമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ ക്യൂരിയസ്സായിട്ട് നമ്മളത് വായിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വലിയ ബുക്കാണെങ്കിൽ പോലും ഒരു വൺ വീക്കിൽ കുറ കുറവ് ഒരു ഫൈവ് ഡേയ്സിൽ ത്രീ ഡേയ്സിനുള്ളിൽ വായിച്ചൊക്കെ കഴിയാൻ പറ്റും പക്ഷേ ആ പുസ്തകം അത്ര ഇൻട്രസ്റ്റിങ്ങല്ല വളരെ ലാഗ്ഗിങ് ആണ് നമുക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതു വായിച്ചു തീർക്കണം പക്ഷേ എന്നാൽ നമുക്കൊരു താത്പര്യമില്ലയെന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുത്തായിരിക്കും ചിലപ്പോൾ വൺ മന്തെടുത്ത് ടു മന്തെടുത്തായിരിക്കും നമ്മൾ അവ അത് വായിച്ച് കഴിയാനുള്ള സമയമെടുക്കുന്നത് പിന്നെ തുടർച്ചയായിട്ട് നമുക്ക് ഒരുപാട് മണിക്കൂർ വായിക്കാൻ പറ്റില്ല കാരണം തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ നമുക്ക് സാധാരണ ഏതൊരു മനുഷ്യനും ഭയങ്കരമായിട്ട് ബോറടിക്കും അതുകൊണ്ട് നമ്മളൊരു ഹാഫ് ഏൻ അവർ വായിച്ച് ഒന്ന് പിന്നൊന്ന് ജസ്റ്റൊന്ന് ബുക്ക് ക്ലോസ് ചെയ്തിട്ട് വേറെന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഇടക്ക് വായിക്കുന്നതായിരിക്കും കുറച്ചു കൂടി നല്ലത് പ്രതി മാസം ലക്ഷ്യങ്ങൾ വെച്ചിട്ടൊന്നും അങ്ങനെയൊന്നും അല്ല നമ്മൾ ജസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റിങ്ങാകുമ്പം നമ്മളത് കൂടുതൽ വായിക്കുകയും ഇൻട്രസ്റ്റിങ്ങല്ലാത്ത പാർട്ട് കുറച്ച് ലാഗടിപ്പിച്ചായിരിക്കും ചിലപ്പോൾ ചില ബുക്കുകൾ വായിക്കണമെന്ന് വിചാരിച്ച് കയ്യിലുണ്ടാകും പക്ഷേ അതങ്ങട് തുടങ്ങാനുള്ള ആ ഒരു മോമെൻറ്റ് നമുക്ക് കിട്ടില്ല അത് ആ മൊമെൻറ്റ് വന്നു കഴിഞ്ഞു നമ്മൾ വായിച്ച് തുടങ്ങി കഴിയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങാകുന്ന ബുക്കുകളുണ്ടാകും ചിലപ്പം നമ്മൾ വളരെ ഇൻട്രസ്റ്റിങ്ങോടുകൂടി ഒരു പുസ്തകം വായിക്കണമെന്നു ആഗ്രഹിച്ച് നമ്മൾ വായിച്ചു തുടങ്ങിയിട്ട് പിന്നെ നമ്മുടിൻട്രസ്റ്റ് പോകുന്ന പുസ്തകങ്ങളും ഉണ്ടാകും അതുകൊണ്ട് നമുക്കങ്ങനെ നമ്മുടെ പുസ്തകം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുമെന്നത് പുസ്തകത്തിനടിസ്ഥാനമാക്കിയാണെന്നാണ് എൻ്റഭിപ്രായം